ഞാനിപ്പോള് പറയാൻ പോകുന്നതൊരു കാറ്ററിങ് സംഭവങ്ങളെക്കുറിച്ചാണ് അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറുക്കൻ അവൻ ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഇരുപതോ ഒരു പേർക്കും പത്ത് പേർക്കും പതിനഞ്ച് പേർക്കുള്ള ചെറിയൊരു ഫംഗ്ഷനോഡറാണ് മാമോദിസ വിവാഹ ചടങ്ങുകള് അങ്ങനുള്ള പരിപാടിക്ക് കൊണ്ടുപോയി തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് അവൻ കുക്കെയ്ത് വീട്ടിലെ വീട്ടീന്ന് സപ്ലൈ ചെയ്യുന്ന അത് വാടകയ്ക്കൊക്കെ എടുത്താണ് ഹയറിങ് സെൻറ്ററിന്നൊക്കെ വാടകയ്ക്കെടുത്താണ് പാത്രവും അതുപോലുള്ള അനുബന്ധ കലങ്ങളും എല്ലാം എടുത്ത് അവന് സജീവമായി പോയി മുമ്പോട്ട് തീർച്ചയായിട്ടും അവൻ്റെ ആ കോൺഫിഡൻസ് വച്ചുകൊണ്ട് അവൻ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ പോയി പത്തെന്നുള്ളത് ചെറിയൊരു ഫങ്ഷനായി ഒരു കല്യാണത്തിൻ്റെ നിശ്ചയം ഭക്ഷണം വരെയായി കുർബാനക്കുൾപ്പെടെയായി നൂറ് നൂറ്റമ്പത് പേർക്ക് വരെ ചടങ്ങുകളായി അപ്പോള് അതനുസരിച്ചുള്ള അവൻ്റെ പാത്രങ്ങളും അല്ലെങ്കില് അവൻ കുറച്ച് രീതിയില് അവൻ വിലയ്ക്കു മേടിക്കാൻ തുടങ്ങി അങ്ങനെ നല്ല രീതിയിൽ അവൻ്റെ നല്ല കാ കഠിനാധ്വാനം കാരണമാണ് അവന് ഇത്രയും മുന്നോട്ടുപോയത് തീർച്ചയായിട്ടും അവൻ്റെ വീട്ടുകാര് സപ്പോർട്ട് ചെയ്തു നല്ല രീതിയിൽ അവൻ പോയി അവൻ അങ്ങനെ വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് അവൻ തീർച്ചയായിട്ടും എല്ലാ സാമഗ്രികളും സാധനങ്ങളും അവൻ മേടിച്ചു സ്വന്തമായിട്ട് മേടിച്ചു അവൻ്റെ വീട്ടില്നിന്ന് മാറി അവൻ ചെറിയൊരു കട വാടകയ്ക്കെടുത്തു അവിടെയായി അവൻ്റെ ഈ കാറ്ററിങ്ങിൻ്റെ എല്ലാം സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്ന അങ്ങനെ അവൻ ചെറിയ രീതിയിൽ വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് വളർന്ന് ഇന്നിപ്പോള് ഒരു ഭയങ്കരമായ എല്ലാ രീതിയിലുള്ളൊരു സെറ്റപ്പൊരു ഫൈവ് സ്റ്റാർ ലെവലിലേക്ക് അവൻ മാറി അതിനോടനുബന്ധിച്ചവന് ഈ ചിക്കൻ്റെ ഒരു ഫാം തുടങ്ങി കാരണം അതുപോലെ ചിക്കൻൻ്റെ ഇപ്പോള് ചിക്കൻ കൂട്ടിയാണല്ലോ ബിരിയാണി ആണേലും വറുത്തതും പൊരിച്ചതൊക്കെ ഈ കാറ്ററിങ്ങിലൊക്കെ അധികം വരുന്നത് അതിനു വേണ്ടി അവര് ഫാം തുടങ്ങി ഫാമിൻ്റെ സ്ഥലം ലീസിനെടുത്തു സ്ഥലം ലീസിനെടുത്തു അവിടെ കോഴിക്കുഞ്ഞുങ്ങളെ അവിടെ വളര്ത്തി അതിനെ നോട്ടവും പരിപാലനവും എല്ലാം അവൻ്റെ പിള്ളാരും അവൻ്റെ അപ്പനും അമ്മയും ഭാര്യയുമായിരുന്നു അങ്ങനെ അതിന് തീറ്റയും കൊടുത്ത് അത് വലുതാക്കി അവർക്ക് അവിടുന്ന് അതിൽ നിന്നും നല്ല വരുമാനമായി അങ്ങനെ അവിടെനിന്ന് പുറത്തോട്ടുള്ള സപ്ലൈയും തുടങ്ങി ഇവരുടെ ആവശ്യത്തിനെടുക്കാന് തുടങ്ങി ഓടി ഇവർക്ക് ലാഭങ്ങൾ ഇരട്ടിയായി അതിനോടനുബന്ധിച്ചു തന്നെ ഇവൻ ചെറിയൊരു ആടിൻ്റെ ഒരു ഫാമും തുടങ്ങി ആടിൻ്റെ ഫാം അവൻ എടുത്തത് ഇപ്പോഴും ഓർമ മലയാറി മലബാറി ഇനത്തിൽപ്പെട്ട ഒരാടിൻ്റെ ഇതാണ് അവനൊരു രണ്ട് ആടിനെ നിന്നാണ് തുടങ്ങിയത് ഒരു തള്ളയാടിനെ മേടിക്കുവായിരുന്നു അതിൻ്റെ കുട്ടികളെ ഉടൻതന്നെ ജനിക്കുകയും ചെയ്തു അങ്ങനെ ആ കുട്ടികളിൽ നിന്ന് വേറെ ബ്രീഡെയ്തു അങ്ങനെ നല്ല രീതിയിൽ അതും അതിപ്പോള് ഒരു നാല്പത് നാല്പത്തിയഞ്ച് കുട്ടികളായി അങ്ങനെ തീർച്ചയായിട്ടും അവൻ്റെ ഇത്രയും വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ്റെ നമ്മളെന്നാല് ഈ പറയുന്നത് തീർച്ചയായിട്ടും അവൻ്റെ കഠിനാധ്വാനം അവൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും മാത്രം അവൻ വളർന്നതും അതുകൊണ്ട് അവനെ അതു മാതിരി തീർച്ചയായിട്ടും ഭയങ്കര ഒരുമാതിരി എന്നാ ഈ പറയുന്നേ ഇപ്പോള് ഒരുമാതിരി ഇപ്പോഴാ ഏരിയയിലെ കമ്പ്ലീറ്റ് അതായത് ഹൈ ലെവലിലുള്ള ആൾക്കാര് വരെ ഇവനിൽ നിന്നാണ് അതായത് ഇവൻ്റെ കാറ്ററിങ് പാർട്ടിക്കാണ് വിളിക്കുന്നത് ഭയങ്കരം അതാണ് നമുക്ക് അറിയാനുള്ള അവൻ്റെ കഠിനാധ്വാനം ഒന്ന് സീറോവിൽ നിന്ന് അവൻ വലിയൊരു മനുഷ്യനായി തീർന്നു ഭയങ്കര ഇപ്പോള് കോടാനുകോടിയുടെ ആസ്തിയായി തീർന്നു ഇതെല്ലാം നമുക്കൊരു പാഠമാണ് കഠിനാധ്വാനം